നവജാത ശിശുവിനെ ആദ്യമൊക്കെ ചെയ്യുന്നത് എന്നു വെച്ചാൽ ഇവിടെ കുട്ടിക്ക് ആദ്യം പാല് കൊടുക്കും പാല് കൊടുത്തൊരു പ്രായമാകുമ്പം പിന്നെ അതിനു പതുക്കെ കുറുക്കൊക്കെ കാ കൊടുക്കാൻ തുടങ്ങും അതിനു മുമ്പിവിടെ ചോറൂണ് നടത്തും ചോറൂണ് ഇന്നാ പിടി ചോറൂണെന്നു പറയുന്നത് ഇവിടത്തൊരു പ്രധാന ആചാരമാണ് കുട്ടിക്കൊരു അമ്പലത്തിൽ അല്ലേ കൊണ്ടു പോയിട്ട് ഊണൊക്കെ കൊടുക്കുന്ന ചോറ് ചോറ് എല്ലാ കറികളും കൂട്ടി എരീ ഉപ്പെല്ലാം കൂട്ടി അതിനു ശേഷമേ കുട്ടിക്ക് ചോറും വീട്ടിലെ ചോറ് കറികൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയുള്ളു പിന്നെ നൂലു കെട്ടെന്നു പറയണൊരു ചടങ്ങുണ്ട് അത് ഇതിനു മുമ്പാണ് ചെയ്യുന്നത് നൂലുകെട്ട് അതൊരു ഇരുപത്തെട്ട് കെട്ടെന്നൊക്കെ പറയും ചിലയിടത്ത് അത് ഇരുപത്തെട്ട് കെട്ടെന്നു പറയണത് ഈ നൂല് കെട്ടിനെ തന്നെ അത് കൊച്ചിന്റച്ഛനും അമ്മയുമൊക്കെ ഇരിക്കും എല്ലാവരും കാണും എല്ലാവരെയും വിളിക്കുമതിന് എന്നിട്ട് കൊച്ചിന്റെ അച്ഛൻ ഈ കൊച്ചിന്റരയിൽ ഒരു അരഞ്ഞാണം ഒരു നൂല് കെട്ടും അതാണ് നൂല് കെട്ട് പിന്നെ അരഞ്ഞാണം ഇട്ടു കൊടുക്കും അരഞ്ഞാണമെന്നു പറഞ്ഞാൽ അരയ്ക്കു ചുറ്റുമിടുന്ന ഇടുന്നൊരു ഇതാണ് ഒരു ഓർണമെൻറ്റാണ് അപ്പോഴതിടും പിന്നെ ചെയ്യുന്നതെന്നു വെച്ചാൽ വേറെ എന്തോന്ന് ചെയ്യും ആ പിന്നെ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കും നൂല് കെട്ട് പിന്നതിനു ശേഷമെന്നു പറയുമ്പോൾ കുട്ടികളെ വീട്ടിൽ തന്നെ നല്ലതു പോലെ പരിപാലിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ വേറെന്തൊക്കെ കൂടുതൽ എനിക്ക് ഇത്രയൊക്കെത്തന്നെ എനിക്കറിയാവു ഓക്കെ